വിദ്യാർത്ഥികൾ അനവധി ഭാഷകൾ പഠിക്കേണ്ടത് ഈ കാലത്ത് ഏറ്റവും അനുയോജ്യമായ ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് അനവധി ഭാഷ എന്ന് ഞാൻ പറയുന്നില്ല അത് എന്നാലും സ്വന്തം ലാംഗ്വേജ് ഒരു മലയാളിയെ സംബന്ധിച്ച് ഒരു മലയാളം അതുപോലെ തന്നെ ഒരു കോമൺ ലാംഗ്വേജ് ഇംഗ്ലീഷ് പിന്നെ ഒരു ഈവൻ ഒരു മുസ്ലിം ആണെങ്കിൽ പിന്നെ കസ്റ്റംസിന് അനുസരിച്ച് മുസ്ലിം ആണെങ്കിൽ നമ്മൾ എന്താ പറയുക നമ്മൾ സാധ്യതകൾ അനുസരിച്ച് ഇപ്പം ജി സി സി കൺട്രീസിലൊക്കെ അറബിക് ആണ് ഫേവറബിൾ അറബിക് ഇതുപോലെ നമ്മുടെ നാടിൻ്റെ ഭാഷ ഹിന്ദി ഈ നാല് ഭാഷയും ഒരു ഒരാൾ കൃത്യമായി പഠിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാകും ഈ വിദ്യാഭ്യാസം ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ ക്ഷാമം നേരിടുന്നത് ഭാഷ വിജ്ഞാനം ഇതിലൂടെയാണ് ഭാഷ വിജ്ഞാനം ഇല്ലാതാകുമ്പോൾ ആണ് ഒരുപാട് വിദ്യാഭ്യാസ ക്ഷാമം നേരിടുന്നത് കാരണം ഒരാൾ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും അ ഒരാൾ പഠിക്കുന്നതിൽ ഏറ്റവും പ്രാധാന്യം ഭാഷ പഠിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നോക്കിയാൻ മനസ്സിലാകും സമന്വയ വിദ്യാഭ്യാസങ്ങൾ ഉണ്ടാകും സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ഏറ്റവും പ്രാമുഖ്യം നൽകുന്നത് ഭാഷാ പഠനത്തിനാണ് പ്രത്യേകിച്ചും എന്താ പറയുക മലയാളം ഉറുദു ഇംഗ്ലീഷ് അറബിക് ഏറ്റവും പ്രധാനം ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് അത് കോമൺ ലാംഗ്വേജ് ആയത് കൊണ്ട് തന്നെ ഇത് നമ്മൾ എവിടെ പോയാലും നമുക്ക് ഉപകാരപ്പെടുന്ന ഏറ്റവും വലിയ സെക്യൂർ ആയിട്ടുള്ള കാര്യമാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിനുള്ളത് അതുപോലെ തന്നെ ജി സി സി കൺട്രീസിലൊക്കെ നോക്കുകയാണെങ്കിൽ അറബിക് നമുക്ക് ഒരു നാട്ടിൽ പോയാൽ അവിടുത്തെ ഏറ്റവും വലിയ കസ്റ്റം എന്ന് പറയുന്നത് അവിടുത്തെ ലാംഗ്വേജ് ആണ് ഇല്ലാതെ നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റുകയില്ല വേറെ എന്ത് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും പ്രധാന്യം ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതാണ് പിന്നെ ഇംപ്രൂവ്മെന്റ് ചെയ്യുകയും വേണം നമുക്ക് നോക്കിയാൽ മനസ്സിലാകും പുറത്ത് യൂറോപ്പിയൻ കൺട്രീസിലേക്ക് പോകുന്ന ആളുകൾ ജർമ്മ ജർമ്മനിയിൽ പോകുന്നവർ ജർമ്മൻ ഭാഷ ഫ്രഞ്ച് ഫ്രാൻസിൽ പോകുന്നവർ ഫ്രഞ്ച് ലാംഗ്വേജ് ഇതൊക്കെ എന്താ പറയുക കമ്പൽസറി ആണ് അവർക്കത് പഠിക്കാതെ അവിടെ പോകാൻ കഴിയുകയില്ല അവർക്കത് ഒരു മെഡിക്കൽ ചെക്കപ്പ് പോലെ ഭാഷ ചെക്കപ്പ് നടത്താം കാരണം ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാതെ ജർമ്മനിയിൽ പോകാനൊരിക്കലും സാധിക്കുകയില്ല അതുപോലെ തന്നെ കമ്പൽസറി ആയത് കൊണ്ട് എൻ്റെ കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും നമ്മൾ പുറത്ത് ഉത്തരേന്ത്യൻ സ്ഥലങ്ങളിലൊക്കെ പോയാൽ നമുക്ക് ഹിന്ദി ഇല്ലാതെ അവിടെ ഒരാളോട് ഒരു ഹെൽപ്പ് ചോദിക്കാൻ കഴിയുകയില്ല